വളരെയേറെ ആഗ്രഹത്തോടൂടിയാണ് ഞാനാ തുന്നല് പഠിക്കാനായിട്ട് പോയത് എനിക്ക് ചെറുപ്പം മുതലേ തുന്നല് പഠിക്കണം എന്ന് ഒത്തിരിയാഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി ആഗ്രഹിച്ച് പല പ്രാവശ്യവും പഠിക്കണം പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല ഒടുവില് ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊള്ളൊരു അടുത്താണ് അവസാനം പഠിക്കാനായിട്ടൊരവസരം കിട്ടിയത് ഞാന് തുന്നല് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും മിഷൻ ചവിട്ടാന് ഒന്നും എനിക്കറിയില്ലായിരുന്നു അവിടെ പോയിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ തുന്നല് പഠിപ്പിക്കുന്ന അധ്യാപിക ആദ്യമേയൊക്കെ പറഞ്ഞ് തന്നു മെഷിൻ ചവിട്ടുമ്പം ആദ്യമേ പുറകോട്ട് ആണ് മെഷീനൊക്കെ ചവിട്ടിക്കൊണ്ട് പൊക്കോണ്ടിരുന്നത് അതായിരുന്നു ഏറ്റവും രസകരമായ സംഭവം മിഷൻ ചവിട്ടി മുന്നോട്ടൊരിക്കലും പോവില്ല മൂന്ന് നാല് ദിവസം മിഷൻ ചവിട്ടി റെഡിയാക്കി കഴിഞ്ഞപ്പളാണ് അത് മുന്നോട്ട് പോകാനായിട്ട് തന്നെ തുടങ്ങിയത് പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടിയാണെങ്കിലും തുന്നല് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് നന്നായിട്ടെനിക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചു എൻ്റെ കൂടെ ഞങ്ങള് മൂന്നും നാല് പേരാണ് ഒരുമിച്ച് ഇത് പഠിക്കാനായിട്ട് പോയത് നല്ല രസകരമായ ഒരനുഭാവമായിരുന്നു നല്ല വസ്ത്രങ്ങളൊക്കെ പുതിയത് തുന്നിച്ചെടു തുന്നിയെട്ക്കുമ്പം നമുക്ക് ഒരു നല്ലൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നുണ്ട് നമുക്കിഷ്ടപ്പെട്ട രീതിയില് വസ്ത്രങ്ങളുണ്ടാക്കി എടുക്കുകയും അതുപോലെ തന്നെ അത് തയ്ച്ച് മറ്റുള്ളവര് ഇട്ട് കാണുകയും നമ്മള് തയ്ച്ചു കൊടുക്കുന്നത് മറ്റുള്ളവര് ധരിച്ച് കാണും ധരിച്ച് കാണുമ്പം നമുക്ക് തന്നെയൊരു നല്ല സന്തോഷമാണ് മനസ്സിന് നല്ലൊരു സന്തോഷാണ് നമുക്കൊരു വരുമാന മാർഗ്ഗം എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ മുഖത്തൊരു സന്തോഷം അല്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മള് തയ്ച്ച് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്നൊരു സന്തോഷം അത് കാണുമ്പഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന രൂപയെ കഴിഞ്ഞും നമുക്കൊരു സന്തോഷം തോന്നുന്നത് അവരുടെ മുഖത്ത് നിറ നിറയുന്ന പുഞ്ചിരി കാണുമ്പഴാണ് അതുപോലെ ഞങ്ങളുടെ ഒപ്പം പഠിച്ച എല്ലാവരും ഇപ്പം നല്ല രീതിയില് തയിക്കുന്നുണ്ട് നല്ല നല്ല രീതിയില് എല്ലാവരും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പുതിയ മോഡലുകളൊക്കെ വന്നാല് പുതിയ ഫഷനുകളൊക്കെ വരുമ്പം നമ്മൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവർക്ക് പറഞ്ഞ് കൊടുക്കുകയും അതുപോലെ തന്നെ അത് അതിൻ്റെ ഫോട്ടോയെക്കെ എടുത്ത് വെച്ചിട്ട് പുതിയ ഉപഭോക്താക്കള് വന്ന് കഴിയുമ്പം നമ്മള് അവർക്ക് അത് കാണിച്ച് കൊടുക്കുകയും അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് ഇതിന്റകത്ത് ആ പഠിക്കാൻ പോയ രസകരമായ സംഭവം എന്ന് പറഞ്ഞാല് അപ്പ് നല്ല ഒരു താല്പര്യത്തോട് കൂടി പോയത് കൊണ്ട് നല്ല എല്ലാവരും സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും നല്ലൊരു പ്രത്യേകമായ ഒരു അനുഭവത്തോട് കൂടിയാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത് പ്രത്യേകമായിട്ട് അല്ലാതെയൊന്നും നമുക്ക് പറയാനില്ല അതിൻറ്റാത്ത് പിന്നെ നമ്മളീ ആദ്യം ചവിട്ടാം പോയി സൈക്കിള് ചവിട്ടുന്ന പോലെ നിങ്ങള് ചവിട്ടി ചവിട്ടി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ടീച്ചറ് ഞങ്ങള് പഠിപ്പിച്ചതാണ് രസകരമായിട്ട് ഞാന് ഓർത്തുകൊണ്ട് ഓർത്തിരിക്കുന്നൊരു അനുഭവം